ഞങ്ങളുടെ ജോലി സ്ഥലത്ത് തൻ്റെ അവിടുന്നൊരു കമ്പനീന്ന് ആദ്യ ജോലി സ്ഥലത്തെ കമ്പനീന്ന് ഒരു ഒരു വർക്ക് ഞങ്ങൾ ഒരു നാലഞ്ച് പേർ കൂടി എടുത്തു അത് ചെയ്യാമെന്ന് എഗ്രിമെൻറ്റിൽ എടുത്തിട്ട് പക്ഷേ ഒരു ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് പേർ അല്ല മറ്റ് വേറെ പുറത്തുന്നുള്ള രണ്ട് മൂന്ന് പേരെ എടുത്ത് ഒരു നമുക്ക് അത്ര വിശ്വാസം ഇല്ലാഞ്ഞ പാർട്ടി ആയിരുന്നു എന്നാകിലും ഒരഞ്ച് പേരെ വേണം അങ്ങനെ അവരെ കൂടെ കൂട്ടെ കൂടി കൂടി ചേർത്തു ചേർത്തിട്ട് പക്ഷേ ഇങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പളത്തേക്ക് അതിന് പൈസ മുടക്കിയാണ് സ്റ്റാർട്ട് ചെയ്തത് ആ പുതിയതായിട്ട് എടുത്ത പാർട്ടികൾക്ക് പൈസ മുടക്കീല്ല ഞങ്ങൾ രണ്ട് പേർ പൈസ നല്ല പോലെ മുടക്കി അത് വർക്ക് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇടക്ക് വെച്ച് അവർ എടുത്ത രണ്ട് മൂന്ന് പേരെ കുറച്ച് വർക്ക് ഡിലെ ആക്കി അതൊരു മുന്നോട്ട് കൊണ്ട് പോകാൻ മേലാത്ത സ്റ്റേജാക്കി അപ്പം പിന്നെ അത് അഥവാ ഇനി അത് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര നഷ്ടം ഉണ്ടാകും പക്ഷേ ഇവർ ഒരു കാരണവശാലും ഇവരെ ഇവരെ കണ്ടിന്യൂ ചെയ്തു കൊണ്ട് പോകാൻ ഒക്കത്തില്ല അത് കാരണം അവരെ ഈ അവിടുത്തെ ഈ അംഗത്തിൽ നിന്ന് മാറ്റി മാറ്റിയിട്ട് മാറ്റിയെച്ചാൽ അത് ചെയ്ത് നമുക്ക് ശരിക്കും ഒരു നല്ല അവർക്ക് വേണ്ട കാശും കൊടുത്തു ഒക്കെ വർക്ക് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതിങ്ങനെ ഇവർ ഡിലെ ആക്കുന്നത് ഒഴപ്പുന്ന ഒഴപ്പിയത് അപ്പം കുറച്ച് കാശ് നഷ്ടം വന്ന് സഹിച്ചട്ട് ഇവരെ മറ്റുവേം ചെയ്തു പക്ഷേ ഞങ്ങൾ വർക്ക് കുറച്ച് റിസ്ക്കിൻ്റെ പുറത്ത് ആ വർക്ക് പൂർത്തിയാക്കി പൂർത്തിയാക്കിയെങ്കിലും നല്ല ഒരു ഇവർ കാരണം ഞങ്ങൾക്ക് ഒരു നഷ്ടം സംഭവിച്ചു അത് ഒരു അവരെ എടുത്തത് തന്നെ ഞങ്ങൾക്ക് ഒരു തെറ്റായി പോയി തെറ്റിലാണ് എടുത്തു എടുത്തത് എന്ന് വെച്ചാൽ അവരെ വിശ്വസിച്ചോണ്ട് എടുത്തു പക്ഷേ അത് അത് തെറ്റി പോയി അങ്ങനെ ഒരു ഒരബദ്ധം അബദ്ധം പറ്റുമായിരുന്നു അത്രയെള്ളു